യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിലുള്ള നമുക്ക് അതായത് ഇപ്പോൾ നമ്മളതിനകത്ത് കൂടുതലായിട്ട് യൂട്യൂബ് ചാനലാണ് കൂടുതലായിട്ടും പാചകമൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം പണ്ടൊക്കെ ടി വി നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ ടി വിയിലൊക്കെയാണേ നമ്മൾ പിന്നെ റീവൈൻ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല നമ്മളതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോയാലേ നമുക്കത് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ അടുക്കളയിലായിരിക്കില്ല ടി വിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ടി വി നടുറൂമിലായിരിക്കും നമ്മളിടക്കിടയ്ക്ക് അവിടെ പോയിട്ട് നോക്കേണ്ടതും അങ്ങനത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മൊബൈലിൽ തന്നെ നമുക്ക് റീവൈൻ്റ് ചെയ്യാനും നമുക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനും കമന്റിലൂടെ ചോദിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നയാണ് ഇപ്പോൾ അതായത് പ പല പലരീതിയിലുള്ള പാചകവിധിയും കാര്യങ്ങളൊക്കെ അതിനകത്തു കൂടി ചെയ്യുന്നുണ്ട് കാരണമെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പലരീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം അതിൻ്റുള്ളിലുള്ള ഇപ്പോളൊരു നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാണേൽ ആതിൻ്റുള്ളിലുള്ള ഏ റ്റു സെഡ് കാര്യം റൈസ് എത്ര ഇടണം ബിരി ചിക്കൻ എത്രയിടണം എന്നുള്ള ഏ റ്റു സെഡ് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വേണമെങ്കിൽ കിട്ടുന്നതാണ്